സയി ഏറ്റവും ദുർഘടമായ പാത അങ്ങനെ ദുർഘടമായ പാതയല്ല ഞാൻ ഓഫ് റോഡ് പോയിട്ടുണ്ടായിരുന്നു വയനാട് ഭാഗത്തേക്ക് അപ്പൊൾ ഓഫ് റോഡ് ട്രിപ്പ് നല്ല ഓഫ് റോഡ് ട്രിപ്പായിരുന്നു അത്യാവശ്യം എന്താ പറയുക കുന്നും മലയും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടി പോയതാണ് ആ സമയത് അതായത് എക്സ്പെക്ട ചെയ്യാണ്ട് വന്ന അത് ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഒരു പാത അങ്ങനെ ഇതാവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ഭാഗത്തൊക്കെ മഴ റീസ് പെട്ടന്ന് പെട്ടന്ന് മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പൊൾ ആ ഭാഗത്ത് എന്താ പറയുക ചെന്ന് പെട്ടു അത്യാവശ്യം നല്ലൊരു മഴ തന്നെയായിരുന്നു വേനൽകാലത്ത് തന്നെയായിരുന്നു പക്ഷെ നല്ലൊരു മഴയായിരുന്നു അപ്പോൾ മലവെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊൾ റോഡെന്ന് പറയാനായിട്ടുള്ള സംഭവം കാണാൻ പോലും പറ്റുന്നില്ല വെള്ളം ഒലിച്ച് പൊന്നോണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ഹെയർപിൻ പോലത്തെ വളവുകളും ചെറിയ ചെറിയ ചെറിയ വഴിയാണ് രണ്ട് ബൈക്കുകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന വഴിയാണ് അപ്പൊൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരേ പോലെ വണ്ടികള് വരുന്നുണ്ടായിരുന്നു വെള്ളം അപ്പം നല്ല സ്പീഡിൽ വെള്ളം ഒലിച്ച് വരുന്നുണ്ടായിരുന്നു ഞാൻ മേലേക്ക് കേറിപോകുന്നൊരു സാഹചര്യത്തിലായിരുന്നു അതിൻറ്റെ മുകളിലെകായിരുന്നു എനിക്ക് പോകേണ്ടത് ആ സമയത്ത് എനിക്ക് മുമ്പ് പോകുന്ന ആൾക്കാരൊക്കെ സ്കിഡായി സ്കിഡായി വീഴുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പതുക്കെ പതുക്കെ പോയി സേഫ് സോണിൽ എത്തി തിരിച്ച് എന്താ പറയുക നല്ല സമയം എടുത്തിട്ടാണ് നമുക്ക് മുകളിൽ എത്താൻ പറ്റിയത് അതേപോലെ തിരിച്ച് ഇറങ്ങുമ്പോഴും അതേ കണക്ക് സമയം കാര്യങ്ങളൊക്കെ ആയി